ഞാൻ മോട്ടർ വാഹനങ്ങളിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ബൈക്കുകളിലൊക്കെ കൂട്ടുകാരുടെ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെയാണെങ്കിലും ഒക്കെ ബൈക്കുകളിൽ ഞാൻ യാത്ര ചെയ്യാറുള്ളതാണപ്പം എനിക്കത് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുമാണ് അപ്പം കുഞ്ഞിലെ തൊട്ട് ബൈക്കുകളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഒരു പഴയ ബുള്ളറ്റുണ്ട് അപ്പോൾ ആ ബുള്ളറ്റിൽ യാത്ര ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ പണ്ട് കുഞ്ഞിലെ തൊട്ടാണെങ്കിലും അച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ കൂടെയൊക്കെ ഞാൻ ബുള്ളറ്റിൽ യാത്ര ചെയ്യാറുണ്ടായിരുന്നു അപ്പം എനിക്കത് വളരെ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇപ്പം എന്തെങ്കിലു ഒരു ചാൻസ് കിട്ടിയാൽ കയറിപ്പോവാറാണ് പതിവ് ഇപ്പോൾ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഞാനിങ്ങനെ പ്ലാനിങ്ങുകളൊന്നും എടുക്കാറില്ല ഇപ്പോൾ ഒരു ചാൻസ് ഇപ്പോൾ ഉണ്ടാകുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങ് കയറിപ്പോവും മറ്റ് ഇപ്പോൾ എന്തെങ്കിലും ഒരു എനിക്കെന്തെങ്കിലും തിരക്കേറിയ ഷെഡ്യൂളുകളുണ്ടെങ്കിൽ എനിക്കത് മാറ്റാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാനത് മാറ്റി വെച്ചിട്ടാണെങ്കിലും കയറിപ്പോകുന്ന ടൈപ്പൊരു വ്യക്തിയായിരുന്നു അതിനുശേഷം വലുതായിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടിയപ്പോൾ നമുക്ക് അങ്ങനെ മാറ്റിവെക്കാൻ പറ്റുന്നില്ലാത്ത പല കാര്യങ്ങളും വരുമ്പോൾ അത് മാറ്റിവെക്കാതെ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞിട്ട് സമയം കണ്ടെത്തി ബൈക്ക് കയറിപ്പോകാറുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എനിക്ക് ബൈക്കിൽ പോകാൻ വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് പിന്നെ തിരക്കേറിയ ഷെഡ്യൂളാണെങ്കിൽ മാത്രം അത് മാറ്റിവെക്കാൻ പറ്റാതെ ഞാൻ അത് പക്ഷേ അതിനുശേഷം അതിനുവേണ്ടി ബൈക്ക് ഓടിക്കുകയോ ബൈക്ക് കയറി പോവാൻവേണ്ടി സമയം കണ്ടത്തി അങ്ങനെ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പം പിന്നെ ഇതിനു വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പ്ലാനിങ്ങുകളൊന്നും എടുക്കാറില്ല കാരണം ഞാൻ കൂട്ടുകാരുടെകൂടെ പോകുമ്പോഴാണെങ്കിൽ പോലും പ്ലാൻ ചെയ്തു പോകുമ്പോൾ അത് അതേപോലെ ഒന്നും നടക്കാറില്ല കാരണം നമ്മളും നമ്മടെ മടിയും ഒക്കെ കാരണം സമയമൊക്കെ നമ്മളൊരു സമയം വച്ച് ഇന്ന സമയത്ത് ഇവിടെ ചെല്ലണമെന്ന് വിചാരിച്ചാൽ നമ്മളെക്കൊണ്ട് പറ്റില്ല കാരണം എന്തെന്നു വെച്ചാൽ നമ്മൾ ചിലപ്പം ചില ഭംഗിയുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പം നമ്മളവിടെ നിർത്തി അവിടെയൊക്കെ കണ്ട് ആസ്വദിച്ചായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ വഴിയിൽ വെച്ച് ഇപ്പോൾ എന്തെങ്കിലും ഒക്കെ ആവശ്യം വന്ന് വണ്ടി നിർത്തണം നമ്മളൊരിക്കലും അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തു പോവാറില്ല പിന്നെ ഒരു ഇന്ന സമയത്ത് വീട്ടിൽ തിരിച്ചെത്തണം എന്നു പ്ലാൻ ചെയ്യാറുമില്ല ചിലപ്പോൾ ഉദ്ദേശിക്കും കാരണം വീട്ടിൽ നമുക്കൊരു സമയം പറയണമല്ലോ ഇപ്പം ഞാൻ ഇന്ന സമയത്ത് വീട്ടിൽ എത്തും അപ്പം ആ ഒരു സമയത്ത് എത്താൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും എത്താറില്ല എത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ വിളിച്ച് ഇങ്ങനെ പറയും എത്താൻ പറ്റത്തില്ല കാരണം നമ്മളിങ്ങനെ ഒരു പരിപാടിയിലാണ് എന്നു പറയും അപ്പോൾ അത് വീട്ടുകാർക്ക് മനസ്സിലാവുകയും ചെയ്യും കാരണം അങ്ങനെ പണ്ടുതൊട്ട് അങ്ങനെയാണ് അപ്പം ആ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല പിന്നെ മറ്റു റൈഡർ റൈഡർമാരുടെ കൂടെയൊക്കെ ഞാൻ പോവാറുണ്ടോ എന്നു ചോദിച്ചാൽ അങ്ങനെ ഞാൻ ഇതുവരെ പോയിട്ടില്ല വഴി വഴിയിൽ വെച്ച് വണ്ടിയൊന്നും ഇല്ലാതെ ലിഫ്റ്റ് അടിച്ച് ഞാനെന്തോ ഒന്നോ രണ്ടോ പ്രാവശ്യം പോയിട്ടുണ്ട് അല്ലാതെ വേറെ എനിക്ക് പരിചയമില്ലാത്ത റൈഡേഴ്സി്ൻ്റെ കൂടെ ഞാൻ പോയിട്ടില്ല പിന്നെ എൻ്റെ കൂട്ടുകാരന്മാർ ഒരുപാട് പേരുടെകൂടെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇപ്പോൾ കളിക്കാൻ പോകുന്നതാണെങ്കിലും ദൂരെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതാണെങ്കിലൊക്കെ ഞങ്ങൾ ബൈക്കിലായിരിക്കും അപ്പോൾ അത് വളരെ നല്ല എക്സ്പീരിയൻസാണ് അതെന്നു പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഇപ്പോൾ എന്നും ഒരാൾ ഫീൽ ചെയ്തിരിക്കേണ്ട ഒരു എക്സ്പീരിയൻസാണ് കൂട്ടുകാരുടെകൂടെ ബൈക്കിൽപോകുന്ന പരിപാടിയൊക്കെ അത് വളരെ നല്ലൊരു സംഭവമാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം നമ്മൾ ഒരിക്കലും ഒഴിവാക്കാതിങ്ങനെ പോകാറുള്ളതാണ് ഇങ്ങനത്തെ ബൈക്ക് റൈഡ് റൈഡിംഗ് ഇങ്ങനത്തെയൊക്കെ